കർഷകർ മൃഗത്തിൻ്റെ മാലിന്യം ഒക്കെ കൈകാര്യം ചെയ്യുന്നത് പല രീതീലാണ് അപ്പം ആയിരിക്കേണ്ട പല മാർഗങ്ങളും അവർക്കെല്ലാവർക്കുമുണ്ട് കർഷകർ ആ മൃഗത്തിൻ്റെ മാലിന്യം കമ്പോസ്റ്റായിട്ട് രൂപപ്പെടുത്തിയെടുത്ത് കൃഷികൾക്ക് ഉപയോഗിക്കാറുണ്ട് ജൈവ വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെയായിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കൂടാതെ ചാണക പശു പശുക്കളുടെ ചാണകം എരുമ ആട് തുടങ്ങിയവയുടെ മാലിന്യങ്ങൾ ഉണക്കിയെടുത്ത് പൊടിയായിട്ടും പൊടിയാക്കി ആളുകൾ വിൽക്ക അത് വിൽപ്പനയ്ക്ക് വെക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ മരങ്ങൾ പിന്നെ കമ്പോസ്റ്റിലും ഒക്കെ ആയിട്ട് രൂപപ്പെടുത്തുന്നു ഇത് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കൂടാതെ ചാണകമൊക്കെ ഇഞ്ചി പോലെയുള്ള കൃഷികൾ മുളപ്പിക്കുവാനൊക്കെ ആയിട്ട് ചാണകപ്പുൽ പച്ച ചാണകത്തിൽ മുക്കിയത് ഉപയോഗിക്കുന്നുണ്ട് മുളക്കാനൊക്കെ ആയിട്ട് ജൈവ വളങ്ങൾക്ക് പ്രധാനമായിട്ടും വേറെ രാസമാലിന്യങ്ങൾക്ക് അതിന്റെതായ സൈഡ എഫേ വേറെ ഭവിഷത്തുകൾ ഇല്ലാതിരിക്കാനായിട്ട് ചാണകോം തുടങ്ങിയവ ജൈവമാലിന്യങ്ങൾ രൂപപ്പെടുന്നുണ്ട് അങ്ങനെ പല രീതീൽ ചാണകമൊക്കെ പുളിപ്പിച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ടാളുകൾ പുളിപ്പിച്ച ചാണകമൊക്കെ വേറെ വേറെയും ജൈവവളങ്ങളോട് കൂടെ ചേർത്ത് അവ പച്ചക്കറി കൃഷികൾക്കും മറ്റുമായിട്ട് അവ ഉപയോഗിക്കുന്നു തളിച്ച് കൊടുക്കുന്നു അങ്ങനെ ചെയ്യുന്നു ഇത് പുളിപ്പിക്കുന്നതനുസരിച്ച് ഇതിലുള്ള എല്ലാ ബാക്റ്റീര്യകൾ വളര്കേം ബാക്റ്റീര്യകൾ മണ്ണിൽ കൂടുതൽ ഫലഭൂഷ്ടമാക്ക്യേം മണ്ണിൻ്റെ സ്വായവികമായ ഘടനയിൽ ഘടനയിൽ ഗുണമേന്മ വെക്കുകയും ചെയ്യുന്നു